ഇപ്പോൾ നമ്മുടെ ജീവിത കാലത്ത് എന്ന് പറഞ്ഞ് കഴിഞ്ഞാല് സാങ്കേതിക വിദ്യ നല്ല രീതിയില് മാറിയിട്ടുണ്ട് കാരണം പണ്ട് എന്ന് പറഞ്ഞ് കഴിഞ്ഞാല് ആകെയുള്ളത് പറഞ്ഞ് കഴിഞ്ഞാല് ഒരു നമ്മുടെ ടീ വി മോണിറ്ററു പോലത്തൊരു കമ്പ്യൂട്ടറും കാര്യങ്ങളക്കെയാണ് നമ്മുടെ സ്ഥലങ്ങളിലൊക്കെ ഉണ്ടാവുക ഇപ്പോൾ ആരുടേയും വീട്ടില് അങ്ങനെ കംപ്യൂട്ടറ് കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല നമ്മള് കൂടുതലായിട്ടും കഫേകളിലൊക്കെയാണ് കൂടുതലായിട്ടും ഇങ്ങനത്തെ കംപ്യൂട്ടറ് കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവുക നമ്മള് കൂടുതലായിട്ട് എന്തെങ്കിലും കാര്യങ്ങള് നമുക്ക് അറിയണമെങ്കിൽ തന്നെ നെറ്റും കാര്യങ്ങളൊക്കെ ഉള്ളത് ഈ കഫേകളിലൊക്കെയായിരിക്കും അപ്പോൾ നമ്മൾ അവിടെ പോയിരുന്നിട്ട് അവിടെ ഒരു മണിക്കൂറിന് ഇരുന്നൂറോ നൂറോ എങ്ങാണ്ട് കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു മണിക്കൂറ് യൂസ് ചെയ്യാൻ വേണ്ടീട്ട് സാധിക്കുന്നതാണ് അപ്പം അങ്ങനെയൊക്കെയാണ് പണ്ട് എന്ന് പറഞ്ഞ് കഴിഞ്ഞാല് നമ്മള് ഓരോ കാര്യങ്ങളൊക്കെ സെർച്ച് ചെയ്തെടുക്കുന്നതും പ്രിന്റ് എടുക്കുന്നതും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മള് അങ്ങനെയായിരുന്നു ചെയ്യണത് അപ്പം ഒരു ഒരു അഞ്ചാറ് വർഷം മുന്നേയൊക്കെ പിന്നേ പിന്നെ പിന്നെ മാറി തുടങ്ങി നമക്ക് നെറ്റും കാര്യങ്ങളൊക്കെ എല്ലാ സ്ഥലത്തും അവൈലബിൾ ആയിട്ട് കിട്ടാൻ തുടങ്ങി മൊബൈൽ ഫോണിൻ്റെ ആരംഭം അങ്ങനെ മൊബൈൽ ഫോണ് വന്നതോടെ കോളും കാര്യങ്ങളൊക്കെ നമുക്ക് സുലഭമായിട്ട് ചെയ്യാൻ വേണ്ടി സാധിച്ചു ആദ്യം എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ കോള് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ഉപകരണം മാത്രായിരുന്നു മൊബൈൽ ഫോൺ എന്ന് വേണമെങ്കിൽ പറയാം പിന്നീടങ്ങോട്ട് നല്ല രീതിയില് മാറി നമക്ക് എല്ലാ കാര്യങ്ങളും അതിനകത്ത് നിന്ന് തന്നെ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നുണ്ട് അങ്ങനെയൊക്കെയാണ് പിന്നെ നമുക്ക് ജോലി സ്ഥലത്തും കമ്പ്യൂട്ടറും കാര്യങ്ങളും ലാപ് ടോപ്പും അങ്ങനെ പല രീതിയില് ഉള്ള മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു